സമൂഹത്തിന് തിരിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ആൾക്കാർ സമൂഹം തന്നെ നമ്മുടെ സൊസൈറ്റി തന്നെ പറയാറുണ്ട് എന്ത് എന്ത് പെണ്ണാണ് ഇത് ഇവളിങ്ങനെയൊക്കെ ആണോ ഒരു മാതിരിപ്പെട്ട പെണ്ണാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇമോഷണലി നല്ല പോലെ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട് അതുപോലെ എന്നു പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് നിർ നിർത്തിയത് അന്ന് എൻ്റെ ഫാമിലി മാത്രമായിരുന്നു എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ട്രാവൽ ചെയ്യാൻ അവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് അവരെന്നെ നീ പോകണ്ടാ എന്ന് പറഞ്ഞ് ഡിസ്ക്കറേജ് ഒന്നും ചെയ്തില്ല എൻകറേജ് തന്നെയാണ് ചെയ്തത് നീ പൊയ്ക്കോ ആരെന്ത് പറഞ്ഞാലും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് നീ പൊയ്ക്കോയെന്ന് തന്നെയായിരുന്നു പറഞ്ഞത് ഒരു ഒരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സെല്ലാവരും കൂടിയിട്ട് കശ്മീർ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു കുട്ടി ധന്യ പറഞ്ഞിട്ട് അവളും ഞാനും പിന്നെ അഞ്ച് ബോയ്സായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി കശ്മീർ പോയി ഞാനായിരുന്നു ട്രാവല് ചെയ്തത് ബൈക്ക് ഓടിച്ചിട്ടാണ് പോയത് ബുള്ളറ്റ് ഓടിച്ചിട്ടാണ് പോയത് ഞാനായിരുന്നു ട്രാവല് ചെയ്തത് ബൈക്ക് ഓടിച്ചതൊക്കെ ഞാനായിരുന്നു അപ്പോൾ ഇവിടെ നിന്നു പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ പോയത് അപ്പം തന്നെ അവിടെ നിന്ന് കുറേ ടോക്കൊക്കെ ഉണ്ടായിരുന്നു എന്താണവളിങ്ങനെ അഴിഞ്ഞാടാൻ വേണ്ടി പോകുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അവരൊക്കെ വീട്ടിലെല്ലാവരുടെ അടുത്തും പറയാൻ തുടങ്ങി അവസാനം എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ റിയാക്റ്റ് ചെയ്തു നിങ്ങൾക്ക് എന്താണ് ഞാനല്ലേ പോകുന്നത് നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിയാക്റ്റ് ഒക്കെ ചെയ്തു റിയാക്റ്റ് ചെയ്തപ്പോൾ പുള്ളി എന്താ എന്തായി ഓ ഇനി നീയൊന്ന് പോകുന്നത് കാണണമല്ലോ ഇനി നീ എങ്ങോട്ടാണ് പോണേ ഇനി എങ്ങോട്ട് പോകണമെങ്കിലും ഇനി ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ പോകണ്ട പോകണ്ട ഇനി പോവ അങ്ങനെ പോകുകയാണെങ്കിൽ തന്നെ ഞങ്ങളിനി നിങ്ങളുടെ ഈ ഫാമിലിയെയൊന്നും ഇരുത്തില്ല ഇവിടെ വീട്ടിൽ വാടകക്കാണെങ്കിലും ഞങ്ങൾ ഇരുത്തില്ല നിങ്ങൾ ഇവിടെ നിന്ന് നാട് വിട്ട് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കുറേ ടോക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഫാമിലി സപ്പോർട്ടോടു കൂടി ഞാൻ പോയി ഞാൻ പോയത് കാശ്മീരിക്കായിരുന്നു അതും ഞാനീ അഞ്ച് ഫ്രണ്ട്സ് അഞ്ച് ആറ് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ട്രാവല് ചെയ്തത് അവർ തന്നെയാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതും തിരിച്ച് വീട്ടിലേക്ക് കയറ്റുമ്പോൾ അവർ തന്നെ ആയിരുന്നു അച്ഛൻ്റെയടുത്തും അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചതും അപ്പം എല്ലാവർക്കും അതിശയമായിരുന്നു അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളിങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരിതുണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞു ആ പുതിയ ജനറേഷൻ അല്ലേ മാറും അതുകൊണ്ടായിരിക്കും ഇപ്പം പലരും ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെയെന്ന് കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രാവൽ ചെയ്താണ് ഞാൻ കാഷ്മീരിലേക്ക് കശ്മീരെന്നു പറഞ്ഞാൽ ബ്യുട്ടിഫുൾ പ്ളേസായിരുന്നു നമ്മളെ മഞ്ഞ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ പോയി കാണേണ്ടത് ഒരുപാട് അലിയിച്ച് മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച് ഒരു പ്ളേസെന്ന് പറഞ്ഞാ കാശ്മീര് തന്നെയാണ് നല്ല പോലെ ആസ്വദിച്ചു നല്ല പോലെ ആ ട്രാവൽ ചെയ്യാൻ പറ്റി അവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല എല്ലാം റൂമാണെങ്കിലും എല്ലാം സെറ്റായിരുന്നു നന്നായിട്ട് പോയിട്ട് വരാൻ സഹായിച്ചു